നമ്മുടെ പ്രദേശത്ത് സ്റ്റേഡിയം എന്നു പറയുന്നത് തൃശ്ശൂരാണുള്ളത് അവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട് തൃശ്ശൂർക്ക് കുറച്ചധികം ദൂരമുണ്ട് തൃശ്ശൂർക്ക് പിന്നെ ഗ്രെ നമ്മുടെ സ്ഥലത്തു നിന്നു പറയുമ്പം കുറേ അധികം ടെറഫ്ഫുകളുണ്ട് പിന്നെ ഗ്രൗണ്ടുകളുണ്ട് അവിടേക്കെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എന്നും കളികൾ നടക്കാറുണ്ട് കായികമായ എല്ലാ കാര്യങ്ങളും നടക്കാറുണ്ട് പിന്നെ നാട്ടിലെ ആൾക്കാരെല്ലാവരും കായികമായിട്ടുള്ള കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നവരാണ് അതുകൊണ്ട് കുറേ ടൂർണമെൻടുകൾ കുറേ ഫെസ്റ്റുകൾ ക്യാമ്പ് ട്രെയിനിങ് അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം നമ്മുടെ നാട്ടിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ കുറേ അധികമുണ്ട് വെക്കേഷനാകുമ്പോഴും അല്ലാത്തപ്പോഴും കുറേയധികം ടൂർണമെൻട് നടത്തുകയും അതേപോലെതന്നെ പുറത്തുന്നുള്ള ആൾക്കാർ മറ്റു രാജ്യങ്ങളിൽ നിന്നുവരെ സുഡാനി നൈജീരിയ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വന്ന് നമ്മുടെ ടീമിനു വേണ്ടി കളിക്കുകയും വളരെയധികം പൈസയുള്ള ക്യാഷ് പ്രൈസ്സുകളും കരിയറും കൊടുക്കുന്നൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ നാട്ടിൻപുറത്തെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാമത്തിലോരോരോ ഗ്രൗണ്ടുകളുണ്ട് അപ്പോൾ അവിടെ പോയി കളിക്കുക അവിടെയുള്ള ആൾക്കാരുമായിട്ട് വർത്താനം പറഞ്ഞിരിക്കുക അതൊക്കെ നല്ല രസമുള്ള കാര്യങ്ങളാണ് പിന്നെ കായികമായ കാര്യങ്ങൾ നടത്താനായിട്ട് ഇവിടെ കുറേ സ്ഥലങ്ങളുണ്ട് പ്രൈവറ്റായിട്ടും അതേപോലെതന്നെ നമ്മുടെ വില്ലേജ് പഞ്ചായത്ത് അവരൊക്കെ നൽകുന്ന ഗ്രൗണ്ടുകളും പഞ്ചായത്തു ഗ്രൗണ്ടുകളും വലിയ വലിയ സ്കൂളുകളുടെ ഗ്രൗണ്ടുകളുമൊക്കെ സജീവമായിട്ട് നമുക്കുപയോഗിയ്ക്കാം അതിനൊന്നുമൊരു കുഴപ്പമില്ല അതിനുള്ള അധികാരങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ അധികാരികൾ തന്നെ ചെയ്യുന്നുമുണ്ട് പിന്നെ കായികമായ കാര്യങ്ങൾക്ക് പൈസ ഇറക്കാനായിട്ട് ആൾക്കാരും ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ടതും ഒരൊപ്രശ്നമല്ല വിഷയങ്ങൾ കുറേ ഉണ്ടെങ്കിലും അതൊക്കെ പറഞ്ഞു തീർക്കാനായിട്ട് നമുക്ക് ആൾക്കാരുമുണ്ട് അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ലിവിടെ പിന്നെ ഫുട് ബോളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഫുട് ബോളിനാണ് ഏറ്റവും കൂടുതലവസരങ്ങളും ടൂർണമെൻടുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നത് ബാക്കിയുള്ള സ്പോർട്സ് തമ്മിൽ അത്ര അധികം കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കുന്നില്ല അതും വലിയൊരു കാര്യമാണ് പിന്നെ നമ്മുടെ നാട്ടിൽ നിന്നുതന്നെയുള്ള ടീമുകൾ വലിയ വലിയ ടൂർണമെൻട് കളിയ്ക്കുകയും അതു ജയിക്കുമ്പം ജയിക്കുകയും ചെയ്യുമ്പം വലിയ ഒരു സന്തോഷമാണ്